എൻ്റെ സൈക്കിൾ സാധാരണ ഞാൻ പരിപാലിക്കാറുള്ളത് എന്നുമത് ഉപയോഗിച്ചു കൊണ്ട് തന്നെയാണ് അതായത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ സൈക്കിളിന് ഒരുപാട് കേടുപാടുകള് വരും അതുകൊണ്ട് തന്നെ ഞാനെന്നും സൈക്കിള് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് ദിവസത്തിലൊരു പത്ത് മിനിറ്റെങ്കിലും ഞാൻ സൈക്കിള് ഓടിക്കാറുണ്ട് അതുപോലെ തന്നെ അതിന് ടയറ് കംപ്ലയിൻ്റാവുകയും അതിൻ്റെ പെഡല് കംപ്ലയിൻ്റാവുകയും ബ്രേക്കിന് കംപ്ലയിൻ്റാവുകയും എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഞാനത് പെട്ടന്ന് തന്നെ നേരെ ആക്കാറുണ്ട് അങ്ങാനെയൊക്കെയാണ് സൈക്കിള് ഞാൻ പരി പരിപാലിക്കാറുള്ളത് അതുപോലെ തന്നെ ഒരു ദൂരെ യാത്രാസ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാനെപ്പോഴും ചൂസ് ചെയ്യാറ് കാറ് തന്നെയാണ് കാരണം വെയിലോ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാർ തന്നെയായിരിക്കും ബൈക്കില് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അമിതമായ വെയിലൊന്നും താങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ മഴയാണെങ്കിലും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകള് സഹിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ കാർ തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മള് കരുതി വെക്കേണ്ടതായിട്ടുള്ളത് ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില മരുന്നുകളും ഒക്കെ ആയിരിക്കണം ഭക്ഷണവും വസ്ത്രവും എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഭക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കരുതണം പിന്നെ അതുപോലെ തന്നെ വസ്ത്രവും നമ്മള് കരുതേണ്ടതുണ്ട്